മനസ്സിന് ശരിക്കുമൊരു സന്തോഷം കിട്ടുന്ന ഒരു ഒരു ജോലിയാണ് പൂച്ചെടികളും അടുക്കളത്തോട്ടങ്ങളും വളർത്തുന്നത് അതിനെന്നു പറഞ്ഞാൽ വിഷരഹിതമായ നമ്മുടെ ഈ അന്തരീക്ഷത്തിൽ നമ്മുടെ ഈ ലോകത്തിൽ അടുക്കളത്തോട്ടം എന്ന് ഉള്ളത് വളരെയൊരു നല്ല ഒരു കാര്യമാണ് ഇങ്ങനെ ചുമ്മായിരുന്ന് മുഷിയുന്ന ഈ പെണ്ണുങ്ങൾക്ക് ഇത്രയും പൈസ കൊടുത്ത് എന്നാ പച്ചക്കറിയുടെ ഒക്കെ വില അപ്പോൾ വിഷത്തിൻ്റെയൊക്കെ അതില്ലാതെ നമുക്ക് അടുക്കളത്തോട്ടം ഉണ്ടാക്കാൻ പറ്റുമല്ലോ പൂച്ചെടികൾ നമുക്ക് സങ്കടമൊക്കെ വരുമ്പോൾ ആ പൂവിൻ്റെ അടുത്തുപോയി നിൽക്കാൻ സങ്കടമൊക്കെ വരുമ്പോൾ നമുക്ക് ആ പൂച്ചെടിയുടെ ഒക്കെ അടുത്തു പോയി നിന്നാൽ നമ്മുടെ മനസ്സിൻ്റെ സന്തോഷം വളരെ വലുതായിരിക്കും അതുകൊണ്ടാണ് പൂച്ചെടി വളരാനെല്ലാവരും ഇഷ്ടപ്പെടുന്നത് പിന്നെ ഒരു വരുമാനമാർഗ്ഗമാണ് ഈ പൂച്ചെടികൾ ഇപ്പോൾ ഒരു പൈസയില്ലാതിരിക്കുന്നവർക്ക് കുടുംബത്തിലേ ഒരു വരുമാനമാർഗ്ഗമായിട്ട് നമുക്ക് അട്ക്കളത്തോട്ടവും പൂച്ചെടികളൊക്കെ വളത്താൻ പറ്റും നല്ല ഒരു ഇതാണ് ഇപ്പോൾ തൊഴിലുറപ്പ് വഴിയായിട്ട് പൂച്ചെടികൾ വളർത്തുന്നതിന് അടുക്കളത്തോട്ടങ്ങൾ അങ്ങനെ വെച്ചു പിടിപ്പിക്കുന്നതിനെല്ലാം തൊഴിലുറപ്പ് വഴിയായിട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെയൊരു മാറ്റമായിട്ടാണ് ഞാൻ നടക്കുന്നത് അപ്പോൾ വരുമാനമാർഗ്ഗവും ആവും നമുക്ക് ആളുകൾക്ക് ജോലി കൊടുക്കാൻ പറ്റും ഒരു അര ഏക്കർ സ്ഥലത്തൊക്കെ നമ്മൾ പച്ചക്കറി ഒക്കെയും നടുകയാണ് വല്ല പൂച്ചെടികളൊക്കെ നടുകയാണെങ്കിൽ അതിന് നമുക്ക് ഗവൺമെൻ്റിപ്പോൾ ഒത്തിരിയാനുകൂല്യം തരുന്നുണ്ട് നമുക്കവർ പൂവ് കൊണ്ടുപോയി കൊടുക്കുന്നതിനുള്ള സ്ഥലങ്ങൾ അങ്ങനെയെല്ലാം കാണിച്ച് നമുക്കൊരു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നിപ്പോൾ ഞാനതിൻ്റെയൊരു ക്ലാസ്സ് കേട്ടിട്ടിങ്ങ് വന്നതേയുള്ളു പിന്നെ എല്ലാ പച്ചക്കറികളിൽ നിന്നും പയറും പാവലൊക്കെ വളർന്നു കയറി അങ്ങനെ കിടക്കുമ്പോൾ അതിനു നമ്മൾ ആദ്യത്തെ ആ ഇത് നമ്മളെടുക്കുമ്പോൾ നമ്മുടെ സന്തോഷമൊന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് പാവലൊക്കെക്കയറി പന്തലിൽക്കയറി നല്ല പാവയ്ക്കയൊക്കെ അങ്ങോട്ടെടുക്കുമ്പോൾ നല്ല വിഷരഹിതമായ പാവയ്ക്ക കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക സുഖം നമ്മുടെ വീട്ടിൽ അതു വെച്ച് വിളമ്പുമ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളൊരു ഞെളിഞ്ഞൊരു നിൽപ്പുണ്ട് എനിക്കതൊക്കെ ഇഷ്ടമാണ് അവരുടെ അടുത്തൊരു ഗമയെടുക്കുന്നത് നമ്മുടെ പച്ചക്കറിയാണല്ലോ എന്നോർക്കുമ്പോൾ പൂവ് ഒരു പൂവങ്ങോട്ട് വളർന്നു കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്റ്റാറ്റസ്സ് എടുക്കുന്നതിന് പൂവിനോട് ഇഷ്ടമാണ് അപ്പോൾ ആ പൂവിനേ ഒക്കെ നോക്കിയിട്ട് വളർന്ന് വിരിഞ്ഞു വരുന്ന പൂവിനേക്കാണാൻ നല്ല ഭംഗിയാണ് നമ്മൾ വീട്ടിലൊക്കെ ഒത്തിരി സങ്കടപ്പെട്ടൊക്കെ ഇരിക്കുമ്പോൾ ഒരു പൂവിൻ്റെയടുത്ത് നിൽക്കുമ്പോൾ എത്ര മനോഹരമായാണ് നമുക്കങ്ങനെ തോന്നുന്നത് അതുകൊണ്ട് എനിക്ക് ആ പൂക്കളും പൂച്ചെടികളും അടുക്കളത്തോട്ടവും വളരെയിഷ്ടം വളർത്താൻ ഇഷ്ടപ്പെടുന്ന ആളാണ് അത് അതുകൊണ്ടായിരിക്കും മലയാളികളും എന്നെപ്പോലെയൊക്കെ ആയിരിക്കും എൻ്റെയൊക്കെ കുറേയൊക്കെ സ്വഭാവം തന്നെയുള്ള മലയാളി അല്ലെ ഈ മലയാളത്തിൽ ഇടുക്കിയിൽ ജീവിക്കുന്നവർക്ക് അതുകൊണ്ടായിരിക്കും മലയാളികളങ്ങനെ ഇഷ്ടപ്പെടുന്നത് പിന്നെ ഈ പൂച്ചെടികളും പച്ചക്കറി അടുക്കളത്തോട്ടങ്ങളൊക്കെ വളർത്തുമ്പോൾ മൂന്നാല് നമുക്ക് ഗുണമുണ്ട് ഒന്ന് നമുക്ക് ശരിക്കിനും പറഞ്ഞാൽ വരുമാനമുണ്ടാവും സന്തോഷമുണ്ടാവും കുടുംബത്തിൽ സമാധാനമുണ്ടാവും പിന്നെ നമ്മുടെ ഈ അടുക്കളയിൽ നിന്നു വരുന്ന വേസ്റ്റ് വെള്ളങ്ങൾ അത് അത് അങ്ങനത്തെ സാധനങ്ങൾ എല്ലാം വലിച്ചെറിയാതെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് മാലിന്യസംസ്കരണം അങ്ങനെ പല പല ഗുണങ്ങൾ ഇതുകൊണ്ട് ശരിക്കിനും എല്ലാ വീടുകളിലും അടുക്കളത്തോട്ടവും പൂച്ചെടികളും വേണം എന്നു പറയുന്നതാണ് എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിൽ സൗകര്യക്കുറവാണ് പൂച്ചെടിയൊക്കെ വെച്ചുപിടിപ്പിക്കാൻ എൻ്റെ മുതിർന്നവർക്കൊന്നും പൂച്ചെടി ചാച്ഛനൊക്കെ വലിയ ചാച്ഛനൊക്കെയുണ്ട് അവർക്ക് പൂച്ചെടികളിലൊന്നും വലിയ താല്പര്യമില്ലാത്തവരായിരുന്നു പക്ഷെ എനിക്ക് സങ്കടമായിരുന്നു ഇപ്പോൾപ്പിന്നെ ഇപ്പിപ്പോൾ ഇപ്പോൾ കുറേശ്ശെ കുറേശ്ശെ പൂച്ചെടി ഞാൻ വെച്ചു പിടിപ്പിക്കുന്നുണ്ട് പച്ചക്കറി വെച്ചു പിടിപ്പിക്കുന്നുണ്ട് അതൊക്കെ എനിക്കിഷ്ടമാണ് എൻ്റെ മത്തങ്ങ കായ്ച്ചു കിടക്കുന്ന കാണാനെന്നാ ശേലാണെന്നറിയാമോ അത് കറിയൊക്കെ വെച്ചു കൂട്ടുമ്പോൾ നമ്മുടേതായൊരു ഗമ നമ്മൾക്കുണ്ട് അതിനോട് ഞാൻ അതിഷ്ടപ്പെടുന്നു പിന്നെ ഇതിനെയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്നത് മലയാളികളാണ് ഇത്രയേ പറയാനുള്ളൂ എനിക്ക് ഇതെയുള്ളു നിർത്ത്